ആ എന്താണ് ഏച്ചി ഏത് മീനാണ് വേണ്ടത് ആ എത്ര വേണം പത്ത് കിലോ വേണോ എന്തിനാണ് കല്യാണം വല്ലതും ആണോ എന്നാലും പത്ത് കിലോ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ എന്തുവാണ് പോലും സാധാരണ അര കിലോ ഒരു കിലോ ഒക്കെ അല്ലേ വാങ്ങിക്കുക പെട്ടെന്ന് പത്ത് കിലോ എന്ന് പറഞ്ഞപ്പം ചോദിച്ച് പോയതാണ് ഏത് വേണം ഇപ്പം പറ നല്ല മീനാണ് ഏച്ചി മേടിച്ചിട്ട് പോയിക്കോ ഇന്ന് രാവിലെ വന്നതേ ഉള്ളൂ വേണമെങ്കിൽ നോക്കിക്കോ ഒരു പ്രശ്നവും ഇല്ല അത് എന്ത് പറ്റി പത്ത് കിലോ വെച്ചിട്ട് ഒന്ന് ഒരു കിലോ ആക്കി കളഞ്ഞത് അയ്യോ പത്ത് കിലോ എന്നല്ലേ പറഞ്ഞത് പത്ത് കിലോ മാറ്റി ഒരു കിലോ ആക്കിക്കളഞ്ഞത് എന്താണ് അത്രയ്ക്ക് വിശ്വാസം ഇല്ലാതായി പോയോ ക്ലീൻ ചെയ്തൊക്കെ തന്നേക്കാം കുഴപ്പമില്ല പക്ഷേ കുറച്ച് സമയം വേണം കേട്ടോ ഉടനെ തരാനൊന്നും പറ്റില്ല പറയുന്ന സ്ഥലത്ത് എന്താണ് ഡിമാൻഡ് കൂടി കൂടി പോകുന്നല്ലോ ചേച്ചി അപ്പോൾ പിന്നെ നമ്മൾ നമ്മൾ വീട്ടിൽ കൊണ്ടുതരുന്നതിൻ്റെ ഒരു ഒരു വല്ല കാശ് അധികം ഇട്ട് തരാമോ അല്ല മി പ ഞാൻ പറയട്ടേ പത്ത് കിലോ മീൻ കട്ട് ചെയ്ത് നിങ്ങളുടെ വീട് വരെ എത്തിക്കുന്നതല്ലേ നിങ്ങൾ ഒരു ചെറിയ പൈസ അധികം തരാമല്ലോ അല്ലേ ആ മീൻ നല്ല ഫ്രഷ് മീൻ ആണ് ഇന്ന് രാവിലെ വന്നതാണ് നേരിട്ട് പിടിച്ച് ഇന്ന് രാവിലെ ഹാർബറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ് അതങ്ങ് കൊണ്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഫ്രഷ് അല്ലെങ്കിൽ പിന്നെ മേടിക്കേണ്ടെന്നേ എൻ്റെ കടയിൽ നിന്ന് പിന്നെ കുഴപ്പം ഇല്ലല്ലോ ഇന്ന് കൊണ്ടുവരുമ്പോൾ കൊള്ളില്ല എന്ന് പറയില്ല ചേച്ചി അത്ര നല്ല മീനാണ് ആ വിശ്വസിക്കാം പിന്നെ ഈ മീൻ എപ്പോൾ വേണമെങ്കിലും ഈ എ ഈ ചേച്ചിയുടെ കടയേ ചേച്ചി ഓർക്കുള്ളൂ പോരേ കച്ചവടം നടത്താൻ വേണ്ടി ഒന്നും അല്ല ചേച്ചി ചേച്ചിക്ക് മീൻ പറ്റിച്ച് തന്നിട്ട് നമുക്ക് എന്ത് ലാഭം കിട്ടാൻ നമ്മൾ ഈ ഒരു കച്ചവടം വെച്ചല്ലേ ജീവിച്ച് പോവുന്നത് അപ്പോൾ പിന്നെ നമുക്ക് പറ്റിച്ചിട്ട് കാര്യം ഉണ്ടോ ചേച്ചി കൊഞ്ച് ഉണ്ട് വേണോ കൊഞ്ച് ഉണ്ട് വേണോ കൊഞ്ച് കിലോ ഒരു കിലോ ഒരു മുന്നൂറ്റമ്പത് രൂപ വരും ചേച്ചി ഇല്ല മുന്നൂറ്റമ്പതാണ് ഏച്ചി കുഴപ്പമില്ല മുന്നൂറ്റമ്പതിനാണ് ചേച്ചി ഇപ്പോൾ പത്ത് കിലോ അയല മേടിക്കുന്നില്ലേ അതിൻറെ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് കൂട്ടിക്കോ മുന്നൂറ്റമ്പത് രൂപ വെച്ച് തരാം എന്ത് ഒരു കിലോ മതിയല്ലോ ആ ശരി അപ്പം ഇതെല്ലാം ക്ലീൻ ചെയ്ത് വീട്ടിൽ എത്തിക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ പെട്രോളിൻ്റെ കാശ് അങ്ങനെ എന്തെങ്കിലും ഇത്തിരി കൂട്ടി തരാമോ ആ എപ്പോഴത്തേക്കാണ് വേണ്ടത് എപ്പോഴാണ് ഫംഗ്ഷൻ നാളെയാണ് അപ്പം ഇന്ന് കൊണ്ടുവന്നുകഴിഞ്ഞാൽ എവിടെ ഇടും ഫ്രഷ് ആയിട്ട് വയ്ക്കാനുള്ള സ്ഥലങ്ങൾ ഉണ്ടോ നിങ്ങൾ ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യാതെ നമുക്ക് കുറ്റം പറയരുത് നമ്മുടെ മീൻ കൊള്ളില്ല എന്നൊക്കെ ആ നാളെ മീൻ ന ച് കേടായിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്ന മീൻ കേടായി എന്ന് നിങ്ങൾ പറയരുതല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഓ ശരി ശരി എന്നാൽ വൈകുന്നേരത്തേക്ക് എത്തിച്ചാൽ മതിയോ ആ ഓക്കെ ഓക്കെ അപ്പം അഡ്രസ്സ് എനിക്കൊന്ന് ഈ നമ്പറിൽ ഒന്ന് അയച്ചാൽ മതി ഞാൻ ആളെ വിട്ടേക്കാം ആ അഡ്രസ്സ് ഡീറ്റെയിൽ ആയിട്ട് വീടിൻ്റെ നമ്പറും കാര്യങ്ങളും ഏതാണ് സ്ട്രീറ്റ് എന്നൊക്കെ ഉള്ളത് എനിക്ക് വാട്ട്സപ്പിൽ ഒരു മെസ്സേജ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആളെ വിട്ടേക്കാം മീനും കൊടുത്തയച്ചേക്കാം അവരോട് പൈസയും കൊടു തന്നവരെ വിട്ടാൽ മതി അല്ലെങ്കിൽ പൈസ എനിക്ക് ഗൂഗിൾ പേ ചെയ്താൽ മതി കയ്യിൽ കൊടുക്കണ്ട കേട്ടോ ഓ ശരി ആ ശരി എന്നാൽ ഓ ശരി